ഹലോ ക്യാബിൻറ്റെ ഓഫീസല്ലേ ആ ഞാൻ ഇന്നലെ നിങ്ങൾക്കൊരു പിന്നെ അതായത് എൻറെ പേര് തുളസിന്നാണേ അപ്പോൾ ഇന്നലെ ഞാൻ ഒരു പിന്നെ അതായത് ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ അതേ അതേ അതേ തുളസി തുളസി അപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കുറച്ച് ചെറിയൊരു പ്രശ്നമായതുകൊണ്ട് അതായത് വീട്ടിലെ അമ്മേൻ്റെ അച്ഛന് സുഖമില്ല അപ്പം ന പിന്നെ അതായത് വീട്ടിൽ നോക്കാൻ ആരുമില്ല ഒന്നാമത് അമ്മ പണിക്ക് പോകുന്നുണ്ട് അച്ഛനും പണിക്കു പോകുന്നുണ്ട് അപ്പോൾ വീട്ടിൽ എന്നോട് രണ്ടുമൂന്നു ദിവസം കൂടി നിന്നിട്ട് പോയാൽ മതിന്നാണ് പറഞ്ഞത് കാരണം അമ്മേൻറ്റെ അച്ഛൻ ഒറ്റക്കല്ലേ അപ്പം ഞാൻ എന്തയതു ഒരു മൂന്നു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ യാത്ര തുടരാന്ന് വിചാരിച്ചു ഇപ്പം അത് എന്തായാലും ഒന്ന് ക്യാൻസലാക്കിയിട്ട് എനിക്കൊന്ന് റീഫണ്ട് കിട്ടുമോന്നറിയാൻ വേണ്ടിയായിരുന്നു ആ ചെക്ക് ചെയ്തോളു ചെക്ക് ചെയ്തോളു ചെക്ക് ചെയ്തിട്ടൊന്നു പറഞ്ഞാൽ മതി ആ ഒക്കെ ക്യാൻസൽ ആക്കിയിട്ടുണ്ടോ ഓക്കേ താങ്ക് യൂ കേട്ടോ അങ്ങനെയാണേ റീഫണ്ട് അതായത് എൻറ്റെ പിന്നെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ചെയ്യില്ലേ ആ ഈ നമ്പറിൽ തന്നെയാണേ ഗൂഗിൾ പേ അതിൽ ചെയ്താൽ മതി ആ ഒക്കേ ഞാൻ രണ്ടുമൂന്നു ദിവസം കഴിയുമ്പോൾ എന്തായാലും ഞാൻ ബുക്ക് ചെയ്യും പക്ഷേ എന്തായാലും റീഫണ്ട് കിട്ടണല്ലോ പിന്നെ കാര്യത്തിൽ എൻറ്റെ കാര്യത്തിൽ അത്ര ഉറപ്പ് ഇല്ലല്ലോ മു രണ്ടു മൂന്നു ദിവസം കഴിയണം അപ്പോൾ ഏത് ദിവസമാന്നു കറക്റ്റില്ലാ കറക്റ്റ് ആയിട്ടറിയില്ല അതുകൊണ്ടാട്ടോ ഓക്കേ ഓക്കേ താങ്ക് യൂ താങ്ക് യൂ